ഹലോ അതെ ആ അത് ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നേ ഗുരുവായൂര് ക്ഷേത്രമുണ്ട് അങ്ങനെ വേറെ കുറെ ക്ഷേത്രങ്ങളൊക്കെയുണ്ട് പക്ഷേ ഇതാണ് രണ്ട് ഫേമസായിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങള് ആ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതുവരെ അതില് നിലവറകളൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് നിധികളും കാര്യങ്ങളൊക്കെ ദിവസേന ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം ഏകദേശം രണ്ട് നിലവറ തുറന്നു അതിൽ നിന്ന് ഒരുപാട് നിധികളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയും അടുത്ത നിലവറകളൊക്കെ തുറക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് പക്ഷേ ഇതൊന്നും ന നടന്നിട്ടില്ല കുറെ അൽ വേറെ കുറെ അത്ഭുതങ്ങള് അവിടെ നടന്നിട്ടുണ്ട് അതൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങള് അപ്പം അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടോ ആ പിന്നേ അത് മാത്രമല്ല അവിടെ കുറച്ച് ചിട്ട വട്ടങ്ങളൊക്കെയുണ്ട് അവിടെ പോകണമെങ്കിൽ അപ്പം രാവിലെ തന്നെ നമുക്ക് അവിടെ എത്തുന്നതായിരിക്കും നല്ലത് അത് രാവിലെ തന്നെ നമ്മൽ അവിടെ എത്തണം എന്നാലേ ഒരുപാട് പേര് കാണാൻ വരുന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ കൊ കുറെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് ബുക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങള് കിട്ടാനൊക്കെ രാവിലെ പോകുന്നതായിരിക്കും കുറച്ചുംകൂടെ നല്ലത് അല്ലെങ്കിൽ നമ്മള് അവിടെ ഒരു എട്ട് മണിയാകുമ്പഴ് എത്തുന്ന ഒരു കണക്കിനാണെങ്കിൽ ഇവിടെ നിന്നൊരു രാത്രിയൊരു ഒരു മണി ആകുമ്പത്തേക്കും നമ്മൾ ഇറങ്ങണം ആ ഓക്കേ നമുക്ക് അങ്ങോട്ട് പോകാം